പറഞ്ഞോ ജോജി ആ ആ ജോജി അതുണ്ടല്ലോ ഞങ്ങൾ ഒരു പ്രൊജെക്റ്റ് ചെയ്യുന്നുണ്ട് കേന്ദ്രസര്ക്കാരിന്റ അണ്ടർല് അത് എന്താണെന്ന് വെച്ചാൽ ഭാഷിണി എന്നുപറയുന്നൊരു ഏ ഐ ടെ പ്രൊജെക്റ്റാ വരുന്നത് അത് പ്രധാനമായും പല ജില്ലകളിലെയും ഭാഷയുടെ വ്യത്യാസത്തെപ്പറ്റി പടിക്കാനുള്ള ഒരു കാര്യമാ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ക്ടാവെന്നു പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികളെയാ വിളിക്കുന്നത് പക്ഷെ അതേസമയം നമ്മുടെ ഈ പരിസരപ്രദേശത്തൊക്കെ ക്ടാവെന്നുപറഞ്ഞാൽ പശുവിന്റെ കുട്ടിയല്ലേ അപ്പം നമ്മള് ഇപ്പോൾ ഒരു ഫോണില് ഏ ഐ യോട് ഒരു സാധാരണക്കാരന് സംസാരിക്കുമ്പം അയാളുടെ സ്ലാങ് ഒരിക്കലും ഒരു തടസമായി മാറരുത് എന്നതിനുവേണ്ടിയിട്ട് കേന്ദ്രസര്ക്കാർ പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ് ഇത് അപ്പം ഇപ്പം നമുക്ക് കോളേജിന് കിട്ടിയ കോണ്ട്രാക്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടത് പത്തനംതിട്ട ജില്ലയാ അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പത്തേക്കും പത്തനംതിട്ട ജില്ലയിൽ ജോജി മാത്രം അല്ലേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ജോജിക്ക് ഇനി അ ആ ഇതിന് നമുക്ക് പ്രായപരിധിയുണ്ട് ഇപ്പം അറുപത് വയസിന് മേളിലുള്ള മൂന്നുപേരെ വേണം അതുപോലെ പതിനെട്ടിനും ആ പതിനെട്ടിനും മുപ്പത്തൊന്നിനും ഇടയിലുള്ള മൂന്ന് പെണ്ണുങ്ങളും മൂന്നാണുങ്ങളും പിന്നെ അതുപോലെത്തന്നെ മുപ്പത്തൊന്നു തൊട്ട് നാൽപ്പത്തഞ്ചു വയസ്സു വരെയുള്ള മൂന്ന് ആണുങ്ങളും നാല് പെണ്ണുങ്ങളും അപ്പോൾ ജോജിയുടെ വീട്ടിലെ ആള്ക്കാരുടെയൊക്കെ പ്രായപരിധി എങ്ങനെയാ വരുന്നത് ഓക്കെ എന്നാൽ ജോജിയുടെ അണ്ടർൽ ഒരു എട്ടോ ഒമ്പതോ പേരെ ആള്ക്കാരെ അങ്ങോട്ടേക്ക് വിട്ടാൽ അവരെ കോഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ പറ്റുമോ അപ്പം ഇതിനെപ്പറ്റിയിട്ട് പരിസരപ്രദേശങ്ങളിലൊക്കെ ഒരു അവയെര്നെസ്സ് പോലെ ഒന്നു പറയുകയാണെങ്കിൽ നമ്മൾ പിള്ളേർ വീട്ടിൽ ചെല്ലുമ്പോൾ ആ അതിനുവേണ്ടിയിട്ട് ജോജിക്ക് അതെയതെ പിന്നെ പ്രധാനമായിട്ടും നമുക്ക് നൂറ്റി അൻമ്പത് പേരെയാ വേണ്ടത് നൂറ്റിയൻമ്പത് പേരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ എട്ടുപേർ വീണ്ടും ഡിവൈഡഡ് ആയിട്ട് വേറെ കുറച്ച് ആൾക്കാരെയും കൂടെ കളക്റ്റ് ചെയ്തിട്ട് വേണമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ആ അത് പ്രശ്നം ഉണ്ടോ ആ അപ്പം ഫാതറിനോടും മതറിനോടും ഒക്കെ ചോദിച്ചിട്ട് അവർ വർക്ക് ചെയ്യുന്നിടത്ത് വല്ലതും ഇങ്ങനെയവര്ക്ക് സഹകരിക്കാൻ പറ്റുമോ ആ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാരിക്കും അപ്പം ഇതിന് ജോജിക്ക് സഹകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചത് ആ കുഴപ്പം ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ഞാന് ഡീറ്റെയില്സ്സ് ഒക്കെ വാട്ട്സ്സപ്പ് ചെയ്തേക്കാം ആ ഓക്കെ ശരി എന്നാൽ